ഹലോ അതെ അതെ ഇതിനും വേണ്ടിയാണല്ലേ ആ ഓഹ് നല്ല വിശേഷം ഞങ്ങൾ വീട് പണിയൊക്കെ അല്ലെ ഗീതമ്മ ആൻ്റി അതു കാരണം ഇങ്ങനെ എല്ലാം തിരക്കിലാണ് അപ്പടി അതെയെന്നെ അതു കാരണം ഓഹ് വാർപ്പ് ആ വാർപ്പ് കഴിഞ്ഞേ ഉള്ളൂ ആൻ്റി വാർത്തിട്ടിരിക്കുന്നതേ ഉള്ളൂ മഴയാണ് കാരണം ഇപ്പം ഇപ്പോഴെങ്ങും എപ്പോഴും മഴയല്ലേ അതു കാരണം വലിയ പാടാണ് ആ അവിടെ വാർത്ത് ഇട്ടിരിക്കുകയല്ലേ മുഴുവനും ഈ കുട്ടികളെല്ലാമായ കാരണമേ ആ പിന്നെ മുട്ട് പാടുള്ളത് കാരണം ഒന്നും നമുക്ക് ആ ഇല്ല ഇല്ല ഇല്ല തീർത്ത് വാർത്തതേയുള്ളൂ വാർത്ത് ഇട്ടതെ ഉള്ളു അതുകാരണം ഒന്നും നടക്കത്തില്ല എന്നാ എന്തോ ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല പുള്ളി പുറത്താണ് അവിടെത്തന്നെയാണ് ഫാമിലിയെല്ലാം തന്നെ പരിപാടിയെല്ലാം തന്നെയാണ് ആ കോണ്ടാക്ട് കൊടുത്തിരിക്കുകയാണ് ഓഹ് അല്ലേ പിന്നെ വലിയ പാടല്ലേ എന്തോ ആ നമ്മടെ ആ നോബിള് ചേട്ടൻ എന്നു പറഞ്ഞ ഒരു പുള്ളിക്കാരനില്ലേ നോബിളെന്ന് ആ ആ ആ ആ ആ ചേട്ടനാണ് ആ ആ ആ പുള്ളിക്കാരനാണ് അതാണ് ഓഹ് അല്ലെങ്കിൽപ്പിന്നെ നമ്മൾ തന്നെയാണ് പാടല്ലേ അതുകൊണ്ടേ പുള്ളിയെ ഏല്പിച്ചതാണ് കാശ് കൊടുത്താൽ മതി ആ അങ്ങനെ പുള്ളി ഏഹ് എനിക്ക് ഡിസംബറ് കഴിയുമ്പോഴത്തേക്ക് തന്നെ പറഞ്ഞാൽ അന്നേരത്തേക്ക് ഒക്കെ തീരുമോയെന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട് ഓഹ് അന്നേരത്തേനൊക്കെ പുള്ളി വരും ഈ മഴയായതുകൊണ്ടാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഇല്ലായിരുന്നെങ്കിൽ ഇനി പുറമൊക്കെ തേക്കാനായിട്ടേ ആ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കാണത്തില്ല ആ ഡിസംബറ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പെരുന്നാളെല്ലാം കഴിയുമ്പോഴത്തേക്കും കയറണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ഈ ബാക്കി പണിയെല്ലാം കിടക്കുകയല്ലേ ആൻ്റി മൊത്തവും തേപ്പും വയറിങ്ങും എന്തോ എന്തോ പിന്നെ മുറ്റമെല്ലാം മുറ്റം കെട്ടിയിട്ടില്ല ഇനി അത് കെട്ടാൻ കിടക്കുന്നു ആ പിന്നെ തേപ്പ് എല്ലാം കിടക്കുകയല്ലേ ആ അയ്യോ ഇനി ഇപ്പോൾ അതിനകത്തേക്ക് തന്നെയെ ഉള്ളൂ ഇതല്ലേ നല്ലത് അല്ലെങ്കിൽപ്പിന്നെ ഇനി ഇടയ്ക്ക് വന്ന് പിന്നെയും പിന്നെയും വരേണ്ടി വരില്ലേ

അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ കാരണം ആ ആ ആ

അതുതന്നെ ആ അങ്ങനെയാണ് ഞങ്ങൾ ഓർക്കുന്നത് നേരത്തേക്ക് അന്നേരത്തേക്ക് തീർക്കാമെന്ന് ആ ആ ആ ആ അതുതന്നെ അതെ ആ ആ ശാരി അക്കരെയുള്ളതാണേ എനിക്കറിഞ്ഞുകൂട പേര് അറിയത്തില്ല ചേച്ചി ആ ഞാൻ തരാം ആൻ്റിക്ക് തരാം ആൻ്റിക്ക് തരാം ആ ആ ആ നല്ല നല്ല പണിയാണ് കേട്ടോ സോ പെട്ടെന്ന് പരിപാടി തീർത്തു കാരണം വെച്ചിരുന്നാൽ ആ കൂട്ടിക്കൂട്ടി ഒന്നും ഇരുന്നൊന്നുമില്ല വേഗം തന്നെ പരിപാടിയൊക്കെ തീർത്തിട്ട് പോയി ആ ഞാൻ എന്നാൽ ഈ നമ്പർ ആ നമ്പര് ഞാൻ എന്നാൽ ആൻ്റിക്ക് പിന്നെ ഇട്ടു തരാം വാട്ട്സപ്പലിട്ട് തരാം ആ വാട്ട്സപ്പിലിട്ട് തരാം ആൻ്റിക്ക് ഞാൻ കുറച്ച് തടിയുണ്ടായിരുന്നു നമ്മൾക്കേ അപ്പം ആ അത് പിന്നെ പോരാത്തത് വാങ്ങിച്ചുകൊള്ളൂ ആ ആ അതെ കുറേ സ്ഥലം നമുക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തു ആ ആ ഇനി ഇപ്പോൾ അതെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്താണെന്നു വച്ചാൽ ഇപ്പോൾ എല്ലാം തട്ടും മുട്ടിലൊക്കെ ഇരിക്കുകയല്ലേ ആ അതൊക്കെ എടുക്കുമ്പോഴത്തേക്കും ആൻ്റി എത്തിയാൽ മതി ആ ആ എന്നാൽ ശരി ആൻ്റി ഓക്കെ